അടുക്കളയിലും ബാത്റൂമിലുമൊക്കെ എലി പാറ്റകളുടെ ശല്യമൊക്കെ വരുമ്പോൾ നമ്മൾ ഈ യൂറ്റൂബിൽ അവിടെ ഇവിടെയൊക്കെ കാണുന്നതുപോലെ പിന്നെ പല്ലി ഇതിന്റെയൊക്കെ ശല്യം ഒഴിവാക്കാനെക്കൊണ്ട് പൊടിക്കൈകളുണ്ട് അത് കാരണം എന്തുവാ പിന്നെ കുറേ സ്റ്റിക്കറൊട്ടിക്കുന്നു അത് പിന്നെ ചോക്ക് അങ്ങന അതൊക്കെ വരയ്ക്കാറുണ്ട് പിന്നെ ചിലന്തി ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് ചോക്കൊക്കെ വരച്ച് കഴിഞ്ഞാൽ അത് മാറുമെന്നാണ് അവർ പറയുന്നത് നമ്മളത് ചെയ്തിട്ടുണ്ട് മാറുമോ ഇല്ലയോയെന്ന് വച്ചാൽ പൂർണ്ണമായിട്ട് മാറത്തില്ല ഉള്ള കാര്യം പറയാമല്ലോ പിന്നെയൊന്ന് ചെയ്തിട്ടുണ്ട് പിന്നെ അല്ലാതെ പിന്നെ എലിയെ പിടിക്കാനൊക്കെയാണെങ്കിൽ പിന്നെ ഇത് എന്തുവാ ഇത് വില്ല് കളിപ്പിച്ച് വെക്കും എലിവില്ല് കളിപ്പിച്ച് വെക്കും കെണി എടുത്ത് അതിനകത്ത് കപ്പയോ പഴവോ ഒക്കെ എടുത്ത് വെക്കുമ്പോഴത്തേക്കും കെണി വെക്കും അല്ലെങ്കിൽ എലിപ്പത്തായം കൊണ്ടുവെക്കും എലി പത്തായത്തിനകത്ത് ഇതുപോലെ പിന്നെ പഴം തീറ്റകൾ വെക്കുമ്പോഴത്തേക്കും പിന്നെ എലി ഇങ്ങനെ വരും വന്നു കടിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് വീഴും അങ്ങനെ എലിയെ പിടിക്കാൻ ഇതാ പക്ഷെ പാറ്റകളുടെ ശല്യം അതങ്ങനെ മാറത്തില്ല പാറ്റയ്ക്ക് പാറ്റ ചോക്ക് വരയ്ക്കാറുണ്ട് അല്ലെങ്കിൽ പാറ്റ ഗുളിക പണ്ടൊക്കെ ഞങ്ങളുടെ ആ എന്റെ ഞങ്ങളുടെ കൊച്ചുനാളിലൊക്കെ അമ്മച്ചിമാരൊക്കെ ഈ തുണിയൊക്കെ മടക്കി വെക്കുമ്പോഴത്തേക്കും പെട്ടിയിലൊക്കെ പാറ്റയുടെ ഗുളിക ഇട്ടു വെക്കുന്നുണ്ട് പക്ഷെ അത് തുണിയൊക്കെ എടുക്കുമ്പോൾ ഒരു സൈസിലെ നല്ല മണമാണ് അതൊരു എനിക്ക് ആ മണം ഇഷ്ടമാണ് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ആ മണമൊന്നും ഇഷ്ടപ്പെടത്തില്ല ഇപ്പോൾ എല്ലാവരും പെർഫ്യൂമും അതുമൊക്കെ അടിച്ചുകൊണ്ടാണ് പോകുന്നത് സ്പ്രേയൊക്കെ പക്ഷേ അന്ന് ആ ആ ആ പാറ്റ ഗുളികയുടെ മണം ഒരു സൈസുള്ള നല്ല മണമാണ് അതെനിക്കിഷ്ടമാണ് അങ്ങനെ പാറ്റ ഗുളികയൊക്കെ ഇട്ടാണ് നമ്മൾ പാറ്റയെ കൊല്ലാറുള്ളത് പിന്നെയൊക്കെ നേരെ നേരിട്ട് കാണുന്നത് തല്ലി കൊല്ലാറുമുണ്ട് അങ്ങനെയാണ് പിന്നെ പല്ലി എന്നു വെച്ചാൽ അത് ഭയങ്കര ഒരു ശല്യമാണ് അതിനെ ഒരിക്കലും അങ്ങനെ എന്തുവാ പെട്ടന്നങ്ങ് തുടച്ചു മാറ്റാനൊന്നും പറ്റത്തില്ല എലിയെ നമ്മളിങ്ങനെ ചെയ്യുന്ന അല്ലെങ്കിൽ വിഷം വെച്ച് കൊല്ലും പാഷാണം വെച്ച് കൊല്ലും പിന്നെ അല്ലെങ്കിൽ ഇതുപോലെ എലിപ്പത്തായത്തിൽ വെച്ച് കൊല്ലും അല്ലെങ്കിൽ എലി വില്ലടിച്ച് കൊല്ലും അങ്ങനെയാണ് നമ്മൾ എലിയെ കൊല്ലുന്നത് പിന്നെ അല്ലാതെ പിന്നെ ഇതുപോലെ പിന്നെ ഇപ്പം കൂടുതലും പെട്ടന്ന് ചെയ്യുന്നത് പാഷാണം വെച്ചിട്ടാണ് നമ്മൾ കൊല്ലുന്നത് എലിപ്പത്തായവും വെക്കും പിന്നെ വില്ല് ഒളിപ്പിച്ച് വെക്കും അങ്ങനെയാണ് എലി വീഴുന്നത് പാറ്റയെ നമ്മളിതുപോലെ പാറ്റാച്ചോക്ക് വെച്ചിട്ട് കൊല്ലും പാറ്റ ഗുളികയും വെച്ചിട്ട് കൊല്ലും എന്നാൽത്തന്നെ അതിന്റെ ഇത് മാറും പിന്നെ ചോക്ക് അവിടെ ഇവിടെനിന്നുള്ള ചോക്ക് മേടിച്ച് മേടിച്ചുകൊണ്ട് വന്നിട്ട് അത് വരയ്ക്കുമ്പോൾ നമ്മളെ ലക്ഷ്മണ രേഖ പോലെ ഒരെണ്ണമുണ്ട് അത് വരയ്ക്കുമ്പോഴത്തേക്ക് പാറ്റയുടെ ശല്യം ഒത്തിരി ഒഴിവാകാനുണ്ട് ഇതാ ഇങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള പൊടിക്കൈകളേ നമുക്ക് അറിവ് ഒള്ളു അത് ഒഴിവാക്കാനെക്കൊണ്ട് നമുക്കത്രയേ അറിയത്തുള്ളു പിന്നെ അതുങ്ങൾ പിന്നല്ലാതെ പിന്നെ ഈ ഇതിനെന്തുവാന്ന് പറയുന്നത് അത് അതിനെ നിഷ്കരണം നമുക്ക് തുടച്ച് മാറ്റാനൊന്നും പറ്റത്തില്ല ഇതേപോലെ കൊച്ചുകൊച്ചു പൊടിക്കൈകൾ കൊണ്ടതിനെ കൊല്ലാനേ പറ്റത്തുള്ളു ഈ എപ്പോഴും ഒത്തിരി പാറ്റ നമ്മുടെ വീട്ടിൽ ഒരുപാട് ശല്യം ഉള്ള ഒരിതാണ് പാറ്റ ആഹാര സാധനങ്ങളൊക്കെ തുറന്ന് വെക്കുമ്പം അതിനകത്ത് വന്ന് കയറുകയും പിന്നെ പൊടിവർഗ്ഗങ്ങളതായത് അരിപ്പൊടി ഇതൊക്കെ തുറന്നിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വന്നു കയറും പഴം അതുപോലെ കുലയെക്കെ പഴുത്ത പഴം കൊണ്ടുവെക്കുകയാണെങ്കിൽ അതൊക്കെ തിന്നാനെക്കൊണ്ട് ഈ പാറ്റയും വരും എലിയും അതുപോല തന്നെ അങ്ങനെ വരും അങ്ങനെ പെട്ടെന്ന് ചത്ത് കൊല്ലാനെക്കൊണ്ട് ഇത്രയേ ഒക്കെ ഉള്ള പൊടിക്കൈകളേ നമ്മക്കറിയത്തുള്ളു അതാണ് നമ്മുടെ വീടുകളിൽ നമ്മൾ പ്രത്യേകം ഇതാക്കുന്നത് ഇതാണ് പിന്നെ ഇവിടെ ശല്യം ഒഴിവാക്കാനെക്കൊണ്ട് വീട്ടിൽച്ചെയ്യുന്ന പൊടിക്കൈ ഇതൊക്കെയേ ഉള്ളു അല്ലാതെ വലിയ വലിയ വലിയ ഇഴജന്തുക്കളെ തല്ലികൊല്ലുന്നത് പോലുള്ളതൊന്നും വേണ്ട അത്രയേ എനിക്ക് അറിയത്തുള്ളു